ചേട്ടാ നമസ്ക്കാരം ഞാൻ നേരത്തേ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർഡെറ് തരാൻ വേണ്ടിട്ടേയ് അത് കഴിഞ്ഞ കുറച്ച് കഴിയുമ്പോൾ ഞാനത് റിജെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അര മണിക്കൂറ് കഴിയുമ്പോൾ അതിൻ്റെ റീഫണ്ട് വരുംന്നാ പറഞ്ഞിണ്ടായിരുന്നത് ഇത്ര നേരയിട്ട് അയിൻ്റെ റീഫണ്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പതെന്താണ് അതിൻ്റെ കാര്യം എന്നൊന്നറിയാൻ വേണ്ടീട്ടാണ് ഞാൻ വിളിച്ചത് എത്ര സമയത്തിനുള്ളിൽ അതിൻ്റെ കയറും പൈസ എന്താണ് അതിൻ്റെ വ്യവസ്ഥയും കാര്യങ്ങളും ഒന്നറിയാൻ വേണ്ടീട്ടെയ് അര മണിക്കൂർ ന്നാണ് പറഞ്ഞ്ണ്ടായിരുന്നത് ഇപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ട് മണിക്കൂറും കഴിഞ്ഞു അപ്പോൾ അതെന്താ കേറാത്തെന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ